നമ്മൾ അപൂര്വമായിട്ട് ചേരുവകള് ചെര്ക്കുന്നതെന്ന് പറഞ്ഞാൽ സോഡ എല്ലാം ചേര്ക്കും അത് അപൂര്വമായിട്ടാണ് ചേര്ക്കൽ കാരണം എന്ന് പറഞ്ഞാൽ ഇഡലി പൊങ്ങി വരാനും ബേക്ക് ചെയ്യുന്ന കേക്ക്സിനെല്ലാം ഈ ഫുഡിന് ഇത് ചേര്ക്കാനുണ്ട് പക്ഷേ ആരോഗ്യത്തിന് വെറും നല്ലതല്ല ഗുഡ് എന്നൊന്നും പറയാനും പറ്റില്ല വയറെല്ലാം കേടാവും ഫുഡ് പോയ്സണ് വരും പക്ഷേ നമ്മൾ ചേർക്കാതെ നമുക്ക് നിവൃത്തിയുണ്ടാവില്ല ചില സമയങ്ങളിൽ നമുക്ക് ചേർക്കേണ്ടി വരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് സാധനം ഇഡലി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പാചകവസ്തുവും സോഫ്റ്റ് ആവാനും ടേസ്റ്റി ആവാനും വേണ്ടിയിട്ടാന്ന് നമ്മൾ ഇങ്ങനെയെല്ലാം ചേർക്കാറ് വയറെല്ലാം കേടാവലുണ്ട് സാധാരണ ഇങ്ങനത്തെ ഫുഡ് എല്ലാം ചെയ്യുമ്പോൾ വയർ കേടാവും ഹോട്ടലില് നിന്നെല്ലാം വാങ്ങുന്ന എല്ലാ സാധനത്തിനും അതുപോലെ തന്നെ ഈ സോഡ ചേര്ക്കുന്നതുകൊണ്ട് വയറിന് വളരെ കേടാണ് പക്ഷേ ഇതേപോലെ ഡൈജസ്റ്റ് ആവാനും വളരെ പ്രശ്നമാണ് ഇങ്ങനത്തെ സാധനം എല്ലാം അതുതന്നെ കുട്ടികൾക്ക് വാ കുട്ടികൾ ദേഷ്യപ്പെട്ട് വാശി പിടിക്കുമ്പോൾ നമുക്കത് വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാൻ തരമില്ല അതുകൊണ്ട് വാങ്ങിയിട്ട് കൊടുക്കലുണ്ട് ചില ഇതാണ് ചിലപ്പോൾ സം സിറ്റുവേഷനിൽ നമുക്ക് വാങ്ങി കൊടുക്കേണ്ടി വരുന്നു പിന്നെ ഫുഡ് കളര് ഇതേപോലെ തന്നെ ഫുഡ് കളേഴ്സ് ആണ് ഫുഡ് കളേഴ്സും അങ്ങനെയാണ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേസ്റ്റിനും പിന്നെ കളറിനും വേണ്ടിയിട്ടാണ് ഫുഡ് കളര് കൂടുതല് ചേര്ക്കുന്നത് അത് ചിലപ്പം എന്ന് പറഞ്ഞാൽ ബിരിയാണി അല്ലെങ്കില് സം ഇതിനെല്ലാം സ്വീറ്റ്സിന് പിന്നെ മറ്റേ മദ്യ എന്താണ് പറയുക നമ്മൾ കൂടുതലും ചേര്ക്കുന്നത് ബിരിയാണിക്ക് ഗോബി ചെയ്യുമ്പോളും ചിക്കന് ഫ്രൈ ചെയ്യുമ്പോളും അങ്ങനെ നമ്മൾ അപൂര്വമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ചേര്ക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ചില അപൂര്വ വസ്തുക്കള് എന്ന് പറഞ്ഞാൽ ചില സീസണിൽ ചില പ്രത്യേക സീസണിൽ ലഭിക്കുന്ന കര്ക്കിടക മാസങ്ങളിലെല്ലാം ലഭിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ ചക്ക ചക്കക്കുരു തകര ഇതെല്ലാം നമുക്ക് ഓരോ അതത് കാലാവസ്ഥയിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നത് ചക്ക വളരെ അപൂര്വമാണ് പക്ഷേ അതിൽ കുറേ വിഭവങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ തകര എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് കിട്ടുന്നതാണ് അത് നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞ് അത് ചെറിയതാക്കി നമ്മൾ ഉപ്പേരിയാക്കും അതിന് ഈ ചക്കക്കുരു ഉപയോഗിച്ച് ചെറി ചെറിയ കട്ട് ചെയ്തത് അതും എടുക്കാറുണ്ട് കൂടുതലായിട്ട് ചക്കക്കുരു എല്ലാ കറിക്കും നമ്മൾ ഈ സീസണ് കഴിഞ്ഞത് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കും ചക്കക്കുരു ഇപ്പോൾ നമ്മൾ ചീരക്കറിക്ക് ഇടും അതുപോലെ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ചക്കക്കുരു ഇതിന്റെ വേറെ സീസൺ ടൈമിൽ നമ്മൾ ചക്കക്കുരുവിനെ പായസം വരെ ഉണ്ടാക്കും ചക്കയുടെയും അങ്ങനെ ചക്കയിൽ കുറേ വിഭവങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കണ് ഇത് കൂടുതലും ഇത് അപൂര്വമായിട്ട് കിട്ടുന്നതാണ് ചക്കയുടെ അട ഉണ്ടാക്കും ചക്കയുടെ പായസം ഉണ്ടാക്കും ചക്കയുടെ ഉപ്പേരി ഉണ്ടാക്കും ചക്കയുടെ കിച്ചടി ഉണ്ടാക്കും ചക്ക അട ഉണ്ടാക്കും ചക്ക മധുരവും ഇതെല്ലാം ഇട്ടിട്ടുള്ള എല്ലാ ഇതും ഉണ്ടാക്കും പിന്നെ നമ്മുടെ വീട്ടില് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ചക്ക കൊണ്ടാണ് ആ ഈ സീസൺ ടൈമിൽ ചക്ക ലഭിക്കുന്ന ചെറിയ ചെറിയ ചക്ക ഉണ്ടല്ലോ നമ്മള് മൂക്കാത്ത ചക്ക എടുത്തിട്ട് അതിനെ ചെറുങ്ങനെ കൊത്തി അരിഞ്ഞ് അത് നമ്മൾ ഇങ്ങനെ കൊത്തിയരിഞ്ഞ കൊത്തിയരിഞ്ഞ് കറി വെച്ച് കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുന്നത് അതും ശ ആരോഗ്യത്തിനു വളരെ നല്ലതാണ് പിന്നെ ഇപ്പോൾ അപൂര്വമായിട്ട് ചേർക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്കാണ് ഇങ്ക് അത് അതും അങ്ങനെയാണ് അത് നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കും അപ്പം മുമ്പെല്ലാം സാമ്പാറിന് മാത്രമല്ല നമ്മൾ ഇങ്ങനെ രസം എല്ലാം വയ്ക്കുമ്പോളും ഇങ്ക് അപൂര്വമായിട്ട് അത് യൂസ് ചെയ്യാറുണ്ട് ഇങ്ക് വേറെ നമ്മൾ ഇങ്കിന് മാത്രമേ നമുക്ക് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് യൂസ് ചെയ്യാറുണ്ട് അപൂര്വമായിട്ടാണ് നമ്മൾ വാഴയ്ക്ക എല്ലാം അതിന്റെ കനറെടുക്കാന് വേണ്ടിയിട്ട് വെള്ളത്തിലാദ്യം ഈ ഒരു വാഴയ്ക്കേനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിലിടും വെള്ളത്തിലിട്ട് ഈ ചുണ്ണാമ്പ് ഇട്ടിട്ട് ഒരു പത്ത് പ ഇരുപത് മിനിറ്റ് വെച്ചാൽ അതിന്റെ കനറെല്ലാം ഇങ്ങനെ ഇളകി പോകും തന്നാലെ ഇങ്ങനെ ഇളകി പോകും അപ്പം ഈ കനറ് എടുക്കാന് വേണ്ടിയിട്ട് നമ്മൾ ചുണ്ണാമ്പ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വഴുതനങ്ങയും അങ്ങനെയാണ് വഴുതനങ്ങയും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് ഈ ചുണ്ണാമ്പ് ഇട്ടാൽ വഴുതനങ്ങയുടെ ഈ കനറെല്ലാം ഇളകി പോകും

യൂസ് ചെയ്യാറുണ്ട് ഈ ചുണ്ണാമ്പ് യൂസ് ചെയ്യുക മാത്രമല്ല അത് വ യൂസ് ചെയ്താൽ അതിന്റെ കനറും പോവും പിന്നെ അത് കറി വയ്ക്കുമ്പം പെടിന്ന് വെന്ത് കിട്ടാനും നമുക്ക് നല്ല യൂസ് ആവാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അപൂര്വമായിട്ട് നമ്മൾ പറയുന്നത് കുരുമുളകാണ് കുരുമുളകും അങ്ങനെയാണ് എല്ലാ കറിക്കും അങ്ങനെ തന്നെ യൂസ് ചെയ്യാറില്ല ചിക്കന് കറി വയ്ക്കുമ്പോൾ കുരുമുളക് യൂസ് ചെയ്യും അതിനെ പൊടിച്ചിട്ടാണ് ഇടുക അല്ലെങ്കില് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില്ലി ചിക്കന് ചില്ലി വയ്ക്കുമ്പോഴോ അങ്ങനെയൊക്കെയാണ് കുരുമുളക് യൂസ് ചെയ്യുന്നത് പിന്നെ പച്ചക്കറിക്ക് അങ്ങനെ കുരുമുളകൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല പിന്നെ കൂടുതൽ മീന്കറി വയ്ക്കുമ്പോൾ ഇടാറുണ്ട് ഫിഷ് കറി വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചില മീൻ എല്ലാ മീനിനും അല്ല ചില മീനുകളില് ഇവിടെ ഇടാറുണ്ട് കുരുമുളക് ഇടും കുരുമുളകും ആരോഗ്യത്തിന് നല്ലതാണ് വയറിന് വളരെ നല്ലതാണ് ഇതെന്ന് പറഞ്ഞാൽ കറുത്ത പൊന്ന് എന്നാണ് കൂടുതലും ഇതിന് പറയുന്നത് അത്രയും ഔഷധ ഗുണമുള്ള ക്യാൻസറിനെ വരെ തട തടയാന് ഉള്ള ശക്തി ഈ കുരുമുളകിന് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം ഇതേപോലെ വേറെ കുറേ സാധനങ്ങള് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് അതുകഴിഞ്ഞ് ഇപ്പം